ഇന്ന് നമ്മടെ ഇന്ത്യയില് നമുക്ക് നമ്മള് ഏറ്റവും കൂടുതല് കാണുന്ന പ്രശ്നം എന്ന് പറയുന്നത് അതായത് ഇന്നിപ്പോൾ ഇന്നിപ്പോൾ നമ്മുടെ സംസ്ഥാനത്താണെങ്കിലും നമ്മള് ഇപ്പോൾ കഴിഞ്ഞ ഇടക്ക് ഒരു പ്രശ്നമുണ്ടായിരുന്നു അതായത് സ്ത്രീകളെ എന്താ ഇത് നഗ്നരാക്കിയിട്ട് പീഡിപ്പിക്കാൻ ശ്രമിച്ചു അങ്ങനെ ഒരുപാട് വാർത്തകള് നമുക്കിന്ന് കാണാം ഇത് ഒരു പെൺകുട്ടി ഒരു വീട്ടില് ഒരിക്കലും ഒരിക്കലും സ്വതന്ത്രയല്ല ഒരിക്കലും അവളവിടെ ഫ്രീയല്ല അവൾക്ക് ഒന്നും ചെയ്യാനുള്ളൊരു സ്വാതന്ത്ര്യം അവിടെ കൊടുക്കുന്നില്ല അവൾ എവിടെ പോയാലും ഇങ്ങനെ നാലാൾക്കാര് കൊണ്ട് അവൾ എപ്പോഴും ഇങ്ങനെ ചൂഷണപ്പെടുകയാണ് ചെയ്യുന്നത് ആരും അവളെ സഹായിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല കൂടെ എന്തിന് പറയുന്നു അച്ഛൻ ചേട്ടൻ വരെ സ്വന്തം രക്തത്തിലുള്ളവരു പോലും ഒരു സ്ത്രീയെ ഇങ്ങനെ പീഡിപ്പിക്കുന്ന ഒരവസ്ഥയിലാണ് വരുന്നത് കഴിഞ്ഞ പ്രാവശ്യം ബീഹാറിൽ ഉണ്ടായ ഒരു സംഭവാണ് സ്ത്രീകളെ നഗ്നരാക്കിയിട്ട് വീഡിയോസ് എടുത്ത് ഓൺലൈനിലൂടെ ഇടുന്നത് അതായത് ഇവര് അവരെ പീഡിപ്പിക്കുക ലൈംഗീകാതിക്രമം നടത്തുക ഇതെല്ലാം ചെയ്യുന്നതൊക്കെയാണ് ഇപ്പോൾ നമ്മടെ സമൂഹത്തില് നടന്നുവരുന്നത് സ്ത്രീകൾ ഒട്ടും സംരക്ഷരല്ല എത്രത്തോളം സ്ത്രീകള് സംരക്ഷരാകാൻ നോക്കിയാലും അതിന് വേണ്ടി എത്രയൊക്കെ പദ്ധതികൾ ഉണ്ടാക്കിയാലും അതിനെയെല്ലാം ഇങ്ങനെ ആക്കാൻ ഒരുപാട് പേരുണ്ട് ഒരുപാട് പേര് അതിനെയെല്ലാം മോശമായിട്ട് അതിനെ ചിത്രീകരിക്കുന്നുണ്ട് സ്ത്രീകളിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് സ്ത്രീകൾക്കെതിരെ ഒരു നടപടികളും സ്വീകരിക്കുന്നില്ല എല്ലാം ആണുങ്ങൾക്ക് മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് തിരിച്ച് വരുന്നുണ്ട് ശരിയാ ഒരുപാടൊക്കെ ശരിയാണ് എങ്കിൽപ്പോലും ഇന്ന് ഏറ്റവും കൂടുതല് ഇന്ത്യയില് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയെന്ന് പറയുന്നത് സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമം തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ സ്ത്രീകളൊട്ടും സുരക്ഷിതരല്ല ഒന്ന് പുറത്തിറങ്ങി നടക്കുമ്പോൾ പോലും ഒരാളുടെ നോട്ടം എവിടേക്കാ പോവുന്നതെന്ന് കണ്ടാൽ നമുക്ക് മനസ്സിലാവും അത്രയ്ക്ക് പ്രശ്നമുള്ള ഒരിതാണ് അങ്ങനെ ഇപ്പോൾ ഈ ബിഹാറില് ഇങ്ങനെ ഒരു കേസ് ഫയൽ ചെയ്ത പോലെ തന്നെ ഓരോ സ്ഥലത്തും ഒരോയിടത്തും ഇങ്ങനെ ഒരുപാട് കാര്യങ്ങള് ഇങ്ങനെ എന്താണ് സ്ഥിതീകരിക്കുന്നുണ്ട് സ്ത്രീകൾക്കെതിരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഒരുപാട് പേര് വരുമ്പോഴും ഇതൊന്നും ആരും ഓർക്കുന്നില്ല എല്ലാർക്കും അവരവരുടെ അവരവരുടെ അവരവര് വിചാരിക്കുന്നത് അവരവരുടെ വീട്ടിലുള്ളവര് നല്ലതാണ് അവരിങ്ങനെ പോകട്ടെ എന്നാണ് ഇതിനിയിപ്പോൾ ഒരു സ്ത്രീക്ക് എന്തെങ്കിലും പറ്റിയാൽ ചുറ്റും ഉള്ളവരെല്ലാരും പിന്നെ അവളെ കാണുന്ന ഒരിതുണ്ട് അതും എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും സ്ത്രീകളെ സുരക്ഷിതരാക്കുക അതാണ് നമ്മുടെ ഇന്ത്യയില് നമ്മൾ എപ്പോഴും ഏറ്റവും കൂടുതലായിട്ട് ചെയ്യേണ്ട ഒരിത് പിന്നെയെന്ന് പറയുന്നത് ജാതി മതം വർണ്ണം ഇതിൻ്റെ പേരും പറഞ്ഞ് നിറത്തിൻ്റെ പേരൊക്കെ പറഞ്ഞ് മത മതവും അതും ഇതൊക്കെ പറഞ്ഞ് താഴ്ത്തി കെട്ടുകയും നിറം ഇല്ലായെന്ന് പറഞ്ഞ് ഒഴിച്ച് നിർത്തി ഒഴിഞ്ഞ് മാറ്റി നിർത്തുകയും ഒക്കെ ചെയ്യുന്ന ഒരു സമൂഹമാണ് നമുക്ക് ചുറ്റും ഉള്ളത് അതെല്ലാം മാറ്റി എല്ലാവരും ഏത് നിറത്തിലുള്ള വ്യക്തിയാണെങ്കിലും എല്ലാവരും ഒന്നാണെന്നെല്ലാം കണ്ട് മുമ്പോട്ട് പോവുകയാണ് ഇപ്പോൾ പാർട്ടി പ്രവർത്തകരാണെങ്കിലും മുസ്ലിംസ് ആണെങ്കിലും ഇവരെല്ലാം മതത്തിൻ്റേയും പാർട്ടീൻ്റേയും നിറത്തിൻ്റേയും എല്ലാവരുടേയും പേരിൽ എപ്പോഴും വഴക്കുണ്ടാക്കുന്നവരാണ് ഇവരാണ് കൂടുതലും കൂടുതലായിട്ട് മനസ്സിലാക്കണ്ടത് എല്ലാവരും മനുഷ്യർ തന്നെയാണ് എല്ലാവരുടേയും ഉള്ളിൽ ഒന്ന് മുറിഞ്ഞ് കഴിഞ്ഞാൽ വരുന്നത് ഒരേ രക്ത മാണ് അപ്പൊ അത് മനസ്സിലാക്കി മുമ്പോട്ട് പോവാമെന്നുള്ളതാണ് നമ്മുടെ ഇന്ത്യയിൽ ഇനിയാണെങ്കിലും ചെയ്യാനുള്ളത് ഇന്ത്യയിൽ കേരളത്തിൽ പൊതുവെ ഇങ്ങനത്തെ ഉള്ള ഇത് കുറവാണെങ്കിലും പുറത്തേക്കുള്ള ഹിമാചൽ പ്രദേശ് ബീഹാർ അങ്ങനെയുള്ള പല പല സ്ഥലങ്ങളിലും ഈ പറയുന്ന അതിക്രമങ്ങളെല്ലാം ഒരുപാട് കൂടി നിൽക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ നമ്മള് അതിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നുപോവുന്നത്